കർഷകരെ സംബന്ധിച്ച് കർഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കാർഷികോല്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നമ്മൾക്ക് വിൽക്കാൻ സാധിക്കാത്തത് ഇടനിലക്കാരുടെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നാൽപ്പത് രൂപ കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നാൽപ്പത് രൂപ കിട്ടുന്ന ഏത് ഭക്ഷ്യ വസ്തുവാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഇരുപത് രൂപയെ കിട്ടുകയുള്ളു ഈ ഇടനിലക്കാരാണ് കൂടുതലും ലാഭം കൊയ്യുന്നത് ആ ആയതിനാൽ കർഷകരെ സംബന്ധിച്ചെടുത്തോളം കർഷകർക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളയൊരു കാര്യമാണ് ആയതിനാൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് ഉപഭോക്താക്കളിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മൾക്ക് സർക്കാർ തലത്തിൽ നമുക്ക് അതിനുള്ളയൊരു സംവിധാനം ഒരുക്കണം അല്ലാത്തെടുത്തോളം കാലം കർഷകർ പരാജിതരായി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത് രൂപ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ ആയി കൂടുതൽ കിട്ടുകയില്ല നമുക്ക് മുടക്ക് മുതലും കഴിഞ്ഞാൽ നമുക്ക് വലിയ ലാഭവുമില്ല ആയതിനാൽ നമ്മൾ ഈ കർഷകർ കർഷകർക്ക് അങ്ങനെയൊരു സംവിധാനം സർക്കാർ തലത്തിൽ കൂടി ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അഭിപ്രായം എങ്കിൽ മാത്രമേ കർഷകർ നമ്മുടെ നാട്ടിൽ വിജയിക്കുകയുള്ളു ഇപ്പോൾ തന്നെ ഒരുപാട് കർഷകർ ആ ഫീൽഡേ അങ്ങ് വിട്ടുപോവുകയാണ് കൃഷി ചെയ്യാൻ മനുഷ്യന് താൽപ്പര്യമില്ല ഒന്ന് മറ്റുള്ള പന്നി ആന അതുപോലെയുള്ളതിൻ്റെയൊക്കെ ശല്യം കാരണം കൃഷി നശിച്ച് പോകുന്നു കൂടാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നമുക്ക് വില കിട്ടാതെയും പോകുന്നു ഇത് വൻ വമ്പൻ ലോബികൾ ഇതിൻ്റെ ലാഭം മുഴുവനെടുക്കുന്നു കർഷകർക്കോ ഒന്ന് തുച്ഛമായ ഇത് മാത്രമേ കിട്ടുന്നുള്ളു അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വിപണനം ചെയ്യുന്നതിനുള്ള സംവിധാനം നമുക്ക് നേരിട്ട് സർക്കാരിന് കൊടുത്ത് കഴിഞ്ഞിട്ട് അവരതിൽ നിന്ന് വിറ്റ് നമുക്കതിൻ്റെ പൈസ തരുന്നതിനുള്ള സംവിധാനം നമ്മുടെ സർക്കാർ തലങ്ങളിൽ തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളുൾ ഉല്പാദിപ്പിക്കുന്ന ഓരോ ഭക്ഷ്യ വസ്തുക്കളും ഒരുപാട് സാധനങ്ങളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചക്ക ഇഷ്ടം പോലെയുണ്ട് അത് വിപണനം ചെയ്യാനും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വിപണത്തിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല അതുകാരണം അത് മുഴുവൻ ചക്കകളും നശിച്ച് പോകുന്നു അതുപോലെ ഓരോ വസ്തുക്കളും കർഷകർക്ക് വിറ്റ് അഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടത് സർക്കാർ തന്നെ നമ്മുടെ ഗവണ്മെൻ്റ് അങ്ങനെയുള്ള ഒരു സംവിധാനം തന്നെ ഒരുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാർഷിക വിളകൾക്ക് കർഷിക വസ്തുക്കൾ സർക്കാരേറ്റെടുത്ത് അതിനുള്ള ഔട്ട്ലെറ്റുകളുണ്ടാക്കി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കർഷകർ സർക്കാർ എടുക്കുക എന്നിട്ട് അത് കയറ്റുമതി ചെയ്യാനും മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കോ രാജ്യങ്ങളിലേക്കോ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലാതെ നമ്മൾ മറ്റൊരു ഏജൻ മറ്റൊരാൾക്ക് നമ്മൾ കൊടുത്ത് കഴിഞ്ഞാലും നമ്മൾക്ക് പകുതി ഒരു കടകളിൽ സാധനം കൊടുത്ത് കഴിഞ്ഞാലോ നമുക്ക് പകുതി പോലും വില കിട്ടത്തില്ല നാൽപ്പത് രൂപയുടെ സാധനത്തിന് നമുക്ക് ഇരുപത് രൂപ അല്ലേ ഇരുപത്തിയഞ്ച് രൂപയേ താഴെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ സർക്കാർ തന്നെ അങ്ങനെയുള്ളൊരു ഔട്ട്ലെറ്റ്കൾ നമ്മുടെ ഏതു സാധനങ്ങളും എടുക്കാൻ ഒരു നിശ്ചിത വില നിശ്ചയിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ടാക്കിയാൽ നമുക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മധ്യവർത്തികളില്ലാതെ കയറ്റുമതി ചെയ്യാനും ഒക്കെ ചെയ്യും അതിന് സർക്കാർ സജ്ജമാകണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്